കേരളത്തിലെ മാധ്യമങ്ങളിൽ ഉൾക്കൊള്ളുന്ന പ്രധാന വിഷയങ്ങൾ ഈയിടെയായിട്ടുള്ള കുറച്ചു വിഷയങ്ങൾ ആണിപ്പോൾ ഞാൻ ആലോചിച്ച് വരുന്നത് അതിൽ മുഖ്യമായ ഒരു വിഷയമെന്ന് പറഞ്ഞാല് ഇപ്പോൾ നടക്കുന്നെ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അതിനോടടുക്കും തോറും നമുക്ക് അധികം കാര്യങ്ങളൊക്കെ അപ്പോള് മാധ്യമങ്ങളിൽ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ കുറേ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു പല പുതിയ പുതിയ രാഷ്ട്രീയ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചുവട് വയ്ക്കുമ്പോൾ അവര് ചെയ്യുന്ന കാര്യങ്ങളായാലും അവർ പുതിയ പുതിയ റാലികൾ നടത്തുന്നു വലിയ വലിയ സമരോ സമരങ്ങൾ നടത്തുന്നു പുതിയ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലും അതിപ്പോള് പല രാഷ്ട്രീയ നേതാക്കളും അതിലൊക്കെ പങ്കെടുത്ത് സാധാരാണക്കാരുടെ അടുത്തുനിന്ന് വോട്ട് അഭ്യർഥിക്കുന്നു അവരെന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർ ജയിക്കാൻ അവരെന്തൊക്കെ ചെയ്യുന്നു അവര് കുറേ കാര്യങ്ങളൊക്കെ കുറേ വാദങ്ങൾ അവര് ഉന്നയിക്കുന്നുണ്ട് കുറേ ഉറപ്പുകള് അവര് നൽകുന്നുണ്ട് അപ്പോള് ഇതൊക്കെയൊരു നമ്മുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളാണിപ്പോള് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തിടെ ഉണ്ടായ കുറേ വാർത്തകൾ പിന്നീടുള്ള വാർത്തകളിപ്പോള് ഇസ്രായേൽ ഗാസ തമ്മിലുള്ള യുദ്ധം അവിടെ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് കുറേയാൾക്കാർക്കുള്ള ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ കുറേ വാർത്തകൾ ഇന്ന് നമുക്ക് കാണാൻ വരുന്നുണ്ട് അതൊക്കെയൊരു വളരെയധിയകം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ സാമ്പത്തികമായ ഇതിലേക്ക് വരുമ്പോള് ഇപ്പോള് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയും കുറേയധികം വാർത്തകള് വരുന്നുണ്ട് അപ്പോള് ഓഹരി വിപണിയുടെ ഏറ്റക്കുറച്ചിലുകളും അതൊക്കെ നമുക്ക് വാർത്തയാക്കാം ഈയിടെയായിട്ട് ഓഹരി വിപണി വളരെ നല്ലൊരു പ്രകടനമാണ് കാഴ്ച്ചവയ്ക്കുന്നത് അപ്പോള് അതൊക്കെ മൊത്തത്തിൽ ഭാരതത്തിന് വളരെ നല്ലൊരു ഇതാണ് വളരെ നല്ലൊരു മാർഗ നിർദ്ദേശമാണു കാണിക്കുന്നത് കാരണം നമ്മടെ ഓഹരി വിപണി കൂടുന്നതും നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിലവാരം സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളൊരു തെളിവാണ് കേരളത്തിൻ്റെ സാമ്പത്തിക നിലയായാലും കുറച്ചേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ റോഡുകളുടെ വികസനം ഇതൊക്കെ കുറേയധികം ഇപ്പോള് ഈയിടെയായിട്ട് വാർത്തയിൽ വരുന്ന വിഷയങ്ങളാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള കൊള്ളകൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈയിടെയായിട്ട് കാണുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ആൾക്കാർ പറ്റിക്കപ്പെടുന്ന മുഴുവനും ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേയധികം ഈയിടെയായിട്ട് വാർത്തകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ച് കൂടിയിരിക്കാം എന്നുള്ളൊരു രീതിയിലൂടെയാണ് വാർത്തകൾ മാധ്യമങ്ങൾ പുറത്ത് വിടുന്നത് സംസ്കാരപരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മടെ ഈയിടയായിട്ടുള്ള പുതിയ പുതിയ കുറേ പടങ്ങൾ വരുന്നത് കുറേയധികം സിനിമകൾ പടങ്ങൾ വരുന്നുണ്ട് ഈ ചലച്ചിത്രങ്ങളിലൂടെ നമ്മുടെ പലയധികം നമുക്ക് കുറേയധികം മലയാളത്തിലായാലും ബാക്കി ഭാഷകൾക്കായാലും കുറേയധികം നല്ലൊരു ഇതാണ് കിട്ടുന്നത് അതൊരു മെച്ചപ്പെടുത്തൽ എന്നൊരു കാര്യം ആണ് അവരുദ്ദേശിക്കുന്നത് അപ്പോള് ഇങ്ങനത്തെ പടങ്ങളെയൊക്കെ നമുക്ക് സാംസ്കാരികമായി വളരെയധികം നിലവാരം ഉള്ള കാര്യങ്ങളാണ് വളരെയധികം ആത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സിനിമകളായാലും പിന്നെ പുസ്തകങ്ങളായാലും പുതിയ പുതിയ പുസ്തകങ്ങള് പിന്നെ വാരികകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്കാര്യമായ സാംസ്കാരികമായ കാര്യങ്ങൾ വളരെ നല്ലതാണ് പിന്നെ കഴിഞ്ഞ മാസമായിരുന്നു തൃശൂർ പൂരം ഉണ്ടായിരുന്നത് അപ്പോള് തൃശൂർ പൂരത്തിലേക്ക് എത്തുന്നവരും വാർത്തകളൊക്കെ അതായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംസ്കാര തലസ്ഥാനമായ തൃശൂരിൽ നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പരിപാടികളിലൊന്നാണ് തൃശൂർ പൂരം അപ്പോള് അതിനെപ്പറ്റിയും കുറേയധികം മാധ്യമങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോള് അതൊക്കെ വളരെ ഈയിടെയായിട്ട് വരുന്ന ഈ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വരുന്ന കുറച്ച് മുഖ്യമായ കാര്യങ്ങളും വാർത്തകളും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്